കായലിൽ കൂടി സഞ്ചരിച്ചിട്ടുണ്ട് നല്ല നല്ല സുന്ദരമായിട്ടുള്ള ഒരു അനുഭവമാണ് സത്യം പറഞ്ഞാൽ കായലിൽ കൂടെയൊക്കെ കായലിൽ കൂടി സഞ്ചരിക്കുക എന്ന് പറയുന്നത് അത് ഒത്തിരി സ് നല്ലൊരു ശാന്തതയുണ്ട് മനസ്സിന് ഒരു ശാന്തതയാണ് നമ്മൾക്ക് ഒത്തിരി പിന്നെ അപ്പുറവും ഇപ്പറത്തെ കിടക്കുന്ന എല്ലാം കാണാനൊക്കെ നല്ല ഒരു ഭംഗിയായിട്ട് ഉള്ളത് നല്ല രസമാണ് കാണാൻ തന്നെ കായലിൽ കൂടെ ബോട്ടിൽ കൂടി സഞ്ചരിക്കുമ്പം തന്നെ ഹൗസ് ബോട്ടുകളിലും സഞ്ചരിച്ചിട്ടുണ്ട് അതും ഒത്തിരി ഒത്തിരി നല്ലതാണ് നല്ല ഒരു താ സുഖമുള്ള ഒരു അനുഭവമാണ് തുഴവഞ്ചിയുണ്ട് അത് ഞാൻ കുഞ്ഞിലേ തൊട്ട് ബോയിങ്ങനെ വള്ളത്തിൽ തുഴവഞ്ചി എന്ന് പറയുമ്പം വള്ളമെന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത് വള്ളം വള്ളത്തിൽ ഇങ്ങനത്തെ ഓടുവള്ളവുമുണ്ട് ഓടുവള്ളത്തിൽ അദ്യം എൻ്റെ കുഞ്ഞിലൊക്കെയുള്ള ഓർമ്മയിൽ ഓടു വള്ളത്തിൽ ഞാൻ പോയിട്ടുണ്ട് അത് നമ്മൾ ഓടുവള്ളത്തിൽ കയറിയപ്പോൾ തന്നെ സ്വന്തമായിട്ട് തുഴഞ്ഞ് ഒരു ഇതിട്ട് തുഴഞ്ഞ് പോകുന്നതായിരുന്നു അത് അത് കഴിഞ്ഞ് ഇപ്പം ഈ ഓടുവള്ളമൊന്നുമില്ല ഇവിടെയൊന്നും ഇപ്പം ഇപ്പം സാദാ വള്ളം വള്ളത്തിൽ കെട്ടി വലിച്ചിട്ടുള്ള ഭാഗം കയർ കൊണ്ട് അക്കരെ ഇക്കരെ നിന്ന് വലിച്ച് പോകുന്ന വള്ളമുണ്ട് അല്ലാതെ വീട്ടിൽ നിന്ന് തുഴഞ്ഞ് പോകുന്നതുമുണ്ട് നമ്മൾ തുഴഞ്ഞിട്ടൊക്കെ ഉണ്ട് അത് നല്ല നല്ലതായിരുന്നു രസമുള്ള ഒരു ദാ ഇപ്പോഴും ഞങ്ങൾ ഞങ്ങൾ ആ പള്ളിയിൽ വേറെ ഒരു പള്ളിയുണ്ട് ഇവിടെ അതിന് അപ്പറത്ത് ഒരു പള്ളിയിൽ പോവുമ്പം നമ്മൾ നമ്മുടെ വള്ളത്തിൽ കയറിയൊക്കെയാണ് പോവുന്നത് നല്ല ഒരു അനുഭവമാണ് സത്യം പറഞ്ഞാൽ വള്ളത്തിൽ പോവുന്നത് പക്ഷെ അത് വിനോദസഞ്ചാരികൾക്കും അത് ഒത്തിരി ഇഷ്ട്ടമുള്ളതായിരിക്കും അവർ ഈ വള്ളത്തിലൊക്കെ പോവുന്നത് അവർക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള പക്ഷേ അവരൊന്നും അങ്ങനെ പോ ഇവിടെ ഒന്നും വന്നിട്ട് അങ്ങനെയൊന്നും ഞാൻ കണ്ടട്ടില്ല പോയിട്ടുള്ളത് അവർക്ക് അത് ഭയങ്കര ഒരു ഇതായിരിക്കും ഈ വള്ളത്തിലൊക്കെ ഞങ്ങളുടെ ഇവിടെ വള്ളം മാത്രമേയുള്ളു കേട്ടോ ബോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിലൊക്കെ ബോട്ടുള്ളു നമ്മുടെ നെയ്യാർഡാമിന് അടുത്ത് നെയ്യാർ ഡാമിൽ ബോട്ടൊക്കെ ഉണ്ട് അവർ വിനോദസഞ്ചാരികളെ കൊണ്ടു പോയി എല്ലാടോം കാണിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ അവിടെ കാണിക്കുകയൊക്കെ ചെയ്യാം കാണാനും അവർക്ക് ഇഷ്ട്ടം പോലെ നല്ലതായിട്ട് കാഴ്ച്ചകൾ കാണാൻ ഒത്തിരിയുണ്ട് കാണാനൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ ഗ്രാമപ്രദേശത്തിലോട്ട് വരുമ്പം മാത്രാണ് ഈ വള്ളങ്ങളൊക്കെ ഇവിടെ അതിൽ ഇപ്പോൾ വള്ളത്തിൽ പോയി ഒത്തിരി ദൂരം പോയി തന്നെ സ്വന്തമായിട്ട് തുഴയാണെങ്കിൽ തുഴയാം അല്ലെങ്കിൽ ആൾക്കാർ തൊഴ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് തുഴഞ്ഞ് കൊണ്ട് പോവാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ട് കാണിക്കുന്ന എല്ലാമുള്ള സ്ഥലങ്ങൾ ഒത്തിരിയുണ്ട് കാണാനായിട്ട് നമ്മുടെ കൂടുതലും മലപ്രദേശോല്ലേ അപ്പഴ് തന്നെ മലകളും ഒത്തിരി കുന്നുകളുമൊക്കെ ആയിട്ട് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ഒത്തിരി കാണാൻ പിന്നെ കൂടുതലും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാമ പ്രദേശങ്ങളിലൊക്കെ വന്നിട്ട് കൂടുതലും ഈ നമ്മുടെ ഈ ആറും അതൊക്കെ തന്നെയാണ് വെള്ളവും വെള്ളവും വെള്ളത്തിൽ കൂടെ ഇരുന്ന് അർക്ക് യാത്ര ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഈ ഹൗസ് ബോട്ടായിരുന്നു അവർക്ക് കൂടുതൽ ഇഷ്ട്ടം ഹൗസ് ബോട്ടാണ് ഹൗസ് ബോട്ട് എന്നൊക്കെ പറയുമ്പം ഒരു ദിവസം പക്ഷെ നമ്മുടെ ഈ നാട്ടിൽ ഹൗസ് ബോട്ടൊന്നും ഇല്ല അവിടെ കൂടുതലും ഉണ്ടെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഉണ്ട് ട്രിവാൻഡ്രത്ത് ഉണ്ട് സ്ഥലം തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്താണ് അത് ഇടുക്ക് പേര് മറന്നു പോയി സ്ഥലത്തിൻ്റെ അവിടെയൊക്കെ അവിടെ ഹൗസ്ബോട്ടൊക്കെ ഉണ്ട് ഹൗസ് ബോട്ട് ഹൗസ്ബോട്ടും ഒക്കെയുണ്ട് കൂടുതൽ ആ അവിടെ ഹൗസ്ബോട്ടില്ലെന്ന് തോന്നുന്നു സാധാ ഇങ്ങനത്തെ കുറേ ഇരുന്ന് പോവുന്നുള്ള ബോട്ട്കളൊക്കെയുണ്ട് പിന്നെ ഹൗസ്ബോട്ടൊക്കെ നമ്മുടെ ആലപ്പുഴയിലൊക്കെയേ ഉള്ളൂ കൂടുതലും നമ്മുടെ ഈ നാട്ടിൽ ഹൗസ്ബോട്ടൊന്നുമില്ല അങ്ങനെ ആലപ്പുഴകാരന്മാരുടെ ഹൗസ്ബോട്ടൊക്കെ രാവിലെ തൊട്ട് വരുന്ന അവർക്ക് അടുത്ത ദിവസം രാവിലെയൊക്കെ ഇറങ്ങിയാൽ മതിയല്ലോ നമ്മുടെ ഇവിടെയൊക്കെ വള്ളങ്ങളൊക്കെ ഉള്ളൂ വള്ളങ്ങളും പിന്നെ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട് പഷേ അവർക്ക് അത് ഭയങ്കര ഇഷ്ട്ടമായിരിക്കും നമ്മുടെ ഇവിടെയൊക്കെ ടൂറിസ്റ്റുകാരെ കൊണ്ടു വന്നു കാണിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് പക്ഷെ കുറച്ച് ചിലവരൊക്കെ കുറച്ച്പേരൊക്കെ ഇടയ്ക്കൊക്കെ വന്നു പോകുന്നൊക്കെയുണ്ട് പിന്നെ അവർക്ക് കാണാനും ഒത്തിരി എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലങ്ങളാണ് ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെയുള്ളത് അവർക്ക് തന്നെ കൂടുതലും ഈ ആറ്റിലൊക്കെ ഈ ആറിലൊക്കെ കുളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ അവർക്ക് കുളിക്കാനൊക്കെയുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വന്നു പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല സ്ഥലമൊക്കെ കാണാനൊക്കെ നല്ല പ്രകൃതി രമണീയമായിട്ടൊക്കെ കാണാനൊക്കെയുള്ള സ്ഥലങ്ങൾ അവർ കാണുന്നു കാണാൻ അവർക്ക് ഒത്തിരിയുണ്ട്